ഹലോ ഇത് മിഷോ അല്ലേ ഞാൻ ഓൺലൈൻ ആയിട്ട് മിഷോയുടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഒരു സാധനം ഡെലിവെറി ചെയ്തായിരുന്നു ആ ഞാൻ കഴിഞ്ഞ അഞ്ചാം തീയ്യതി ആ ആ വെള്ളിയാഴ്ച ഞാൻ ഒരു ഉടുപ്പായിരുന്നു ഓഡെർ ചെയ്തിരുന്നത് ആ അത് ഇല്ലെ ആ അത് ഓഡർ ആയിട്ടുണ്ട് പക്ഷെ അത് പൊട്ടിച്ച പാക്കേജായിട്ടാണ് ഇവിടെ വന്നേക്കുന്നത് ആ അതിൽ അത് പൊട്ടിച്ചിട്ട് എടുത്ത പാക്കേജ് ഇവിടെ വന്നേക്കുന്നത് അങ്ങനെ അല്ലല്ലോ വരേണ്ടത്

ആ അതെ മുരിക്കാശ്ശേരിയാണ് ആ അതെ അതെ അവിടെ നിന്ന് തന്നെയാണ് കിട്ടിയത് പക്ഷെ അതിന് കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു ആ പക്ഷേ എൻ്റെ കൈയിൽ പൊട്ടിയിട്ടാണ് കിട്ടിയത് അയ്യോ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക അപ്പം എനിക്ക് നഷ്ടമല്ലെ അത് ഏയ് കടയിലുള്ളവർ എനിക്ക് പരിചയമുള്ളവരാണ് അവർ എന്തായാലും അങ്ങനെ ചെയ്യില്ലല്ലോ ആ എങ്കിൽ നിങ്ങൾ വന്നു നോക്കൂ അതില് കമ്പളയിൻ്റ് ഉണ്ട് അപ്പം പിന്നെ എനിക്ക് അത് യൂസ്ഫുൾ അല്ലല്ലോ ആ പ്രൊഡക്ടിന് ഡാമേജസ് ഉണ്ട്

അപ്പം പിന്നെ ഞാൻ എന്തു ചെയ്യും നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ തുടങ്ങിയാൽ ഇനി ഞാൻ ഓൺലൈനിൽ ഒന്നും ഓഡെർ ചെയ്യാൻ പറ്റില്ലല്ലോ ഓക്കെ ആ ഇമേയിൽ ഐ ഡി ഒന്ന് എനിക്ക് സെൻ്റ് ചെയ്യുമോ എന്തായാലും എനിക്ക് എന്തെങ്കിലും ആ ഓക്കെ ആ

ഓക്കെ ഓക്കെ ഐശ്വര്യ ഡോട്ട് പിന്നെ എന്തുവായിരുന്നു ആ ഓ ഓക്കെ ഓക്കെ ഓക്കെ അപ്പം എന്തെങ്കിലും നഷ്ട പരിഹാരം കിട്ടും ഉം ഓക്കെ ഓക്കെ ഞാൻ ഒന്ന് അന്വോഷിച്ചു നോക്കട്ടെ ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്നോളാം നേരിട്ട് പക്ഷേ എനിക്ക് പൊട്ടിച്ചിട്ടാണല്ലോ കിട്ടിയത് ഓക്കെ എങ്കിൽ ഞാൻ ഒന്ന് അന്വോഷിച്ചു നോക്കട്ടെ ഓക്കെ താങ്ക് യു